കേരളത്തിലെ ഒട്ടു മിക്ക ആളുകളും ആഘോഷിക്കുന്ന ഒരു പരിപാടിയാണ് ഓണംന്നൊള്ളത് ഓണം കേരളീയരെല്ലാരും ആഘോഷിക്കുന്നൊരു ഓ ഇഷ്ട്ടപ്പെടുന്ന ഒരു പരിപാടിയാണ് ഈ ഓണംന്ന് പറയുന്നത് ഓണമെന്ന് പറഞ്ഞാല് ഈ വീട്ട് മുറ്റത്ത് രാവിലെ എഴുന്നേറ്റ് കുളിച്ച് നല്ല വൃത്തീല് പോയി പൂവൊക്കെ പറിച്ച് മിറ്റത്ത് നല്ലൊര് ചാണകം മിറ്റോക്കെ നല്ല ചാണകത്തില് മെഴുകി മിറ്റത്ത് ഒരു തറേയൊക്കെ വച്ച് അയിലാണ് നമ്മള് പൂ പൂക്കളം ഇടാൻ പോകുന്നത് പൂക്കള് പറിക്കാൻ പോകുന്നത് തന്നെ നല്ലൊരു രസാണ് എല്ലാരും ഒരു പൂച്ചെണ്ട് ഒരു കവറ് ഒരു പത്രക്കേടുത്തിട്ട് എല്ലാവരും കുട്ടികളെല്ലാവരും കൂടെ പാടത്തേക്കും അപ്പഴ് അടുത്തുള്ള വീടുകളിലേക്കക്കെ പോയി പൂക്കളക്കെ പറിച്ച് കൊണ്ട് വരാറുണ്ട് അങ്ങനെ പൂക്കളെല്ലാം പറിച്ച് കൊണ്ട് വന്ന് ലാസ്റ്റത് അറിഞ്ഞ് നുറുക്കി ചെറിയ ക ചെറിയ പീസാക്കി ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കീട്ട് പൂക്കളം വരക്കും പൂക്കളം വരച്ചിട്ട് അത് അതിനോട് ചുറ്റും ഇങ്ങനെ ഇട്ട് നമ്മള് ഓണം ആഘോഷിക്കാറ്ണ്ട് ഓണത്തിന് പാട്ടും ഡാൻസും അങ്ങനെയുള്ള ഒരുപാട് പരിപാടികളൊക്കെ ഉണ്ട് അതുകൊണ്ട് തന്നെ കേരളീയര് എല്ലാവരും പങ്കെടുക്കുന്ന ഒരു പരിപാടി തന്നെയാണ് ഓണം എന്നൊള്ളത്